ടി വിയിൽ എനിക്ക് തമാശ എപ്പോഴും ഇഷ്ടമാണ് അതുപോലെ സിനിമ ഇഷ്ടാണ് നാടകങ്ങൾ ഒക്കെ ഇഷ്ടമാണ് കാരണോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾഎന്താ പറയാ ന്യൂസ് ഒക്കെ ഇഷ്ടമാണ് പക്ഷേ നമ്മൾ എപ്പളും നമ്മൾ ചിന്തിക്കാൻ വിഷ്വലൈസ് ചെയ്യുന്നത് സിനിമ കണ്ടായിരിക്കും അപ്പം നമ്മൾ വിഷ്വലൈസ് വിഷ്വലൈസേഷൻ്റെ ഒരു അളവ് കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്ത് സിനിമ അതുപോലെ തമാശ തമാശ എന്ന് പറഞ്ഞ ചിരിക്ക ചിരിച്ചാൽ ആയുസ് കൂടും എന്ന് പറയുന്നത് പോലെ ചിരിക്കുമ്പോൾ ആയുസ് കൂടും അതുപോലെ തന്നെയാണ് ആ അതുകൊണ്ടാണ് ചിരി ചിരിൻ്റെ ഒരു സഹായം ആണെന്നാണ് പറയുന്നത് കാരണം ചിരിച്ചു കഴിയുമ്പോ നമുക്ക് ചിരി അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഇങ്ങനെ തമാശ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പളും എപ്പളും ജോയായിട്ടിരിക്ക് നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ കഴിവ് ചിരിക്കാൻ എന്ന് ഉള്ളതാണ് മനസ്സിലായോ അപ്പം ആ ചിരി ചിരി പുഞ്ചിരിച്ചു കൊണ്ട്തന്നെ നമുക്ക് ഇനിയുള്ള കാലം അടിപൊളിയായിട്ട് ജീവിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായോ എനിക്ക് അതുപോലെ ടി വി ഇഷ്ടമാണ് അതുപോലെ റിയാലിറ്റി ഷോസ് ഇഷ്ടാണ് എല്ലാം ഇഷ്ടാണ് അതെന്ന് വെച്ചാൽ നമ്മളെ ഒരുപോലെ ചിന്തിപ്പിക്ക അതുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ടി വി ഷോസ് എല്ലാം പിന്നെ ഇഷ്ടം അല്ലാന്ന് പറയുമെങ്കിൽ തോന്നുന്നത് സീരിയൽസ് ആണ് കാരണം വെറുതെ കുറേ സസ്പെൻസ് ബാക്കി ഇങ്ങനത്തെ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ചിന്തിച്ച് കൊണ്ട് ഇരിക്കാൻ പറ്റുന്നത് കുറേ ഓർമ്മകൾ തന്നിട്ട് പോകുന്ന സാധനം അതുപോലെ തന്നെ എപ്പളും ഇതായിട്ട് ഇരിക്കും എനിക്കതാ പറയുന്നേ തമാശ പരിപാടിയും ടി വി ഷോസിൽ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വേറൊന്നും ഇല്ല